ഗ്രാമീണ മേഖലയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം മെച്ചപ്പെടുത്താൻ സർക്കാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ ഒരുപാട് അതായത് സ്കൂളിലൊക്കെ ഒരുപാട് കമ്പ്യൂട്ടർ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്കൂളിൽ ഓരോ സൗകര്യങ്ങൾ ബാത്രൂം സൗകര്യങ്ങൾ പിന്നെ കുട്ടികൾക്ക് അതായത് പാവപ്പെട്ട കുട്ടികൾക്ക് പിന്നെ ബുക്ക് അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ അതായത് പട്ടിക വർഗ്ഗം പട്ടിക ജാതി ആ വിഭാഗത്തിൽ പെട്ടവർക്ക് ഗ്രാൻ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാമ പ്രദേശങ്ങളിലെ കുട്ടികളൊക്കെ ചില കുട്ടികളൊക്കെ പിന്നെ സ്കൂളിൽ അയയ്ക്കാത്തതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം അവരുടെ വീട്ടിലെ അവസ്ഥയായിരിക്കും അതായത് ചിലപ്പം അവർക്ക് പട്ടിണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ വിടാണ്ട് വേറെ എന്തെങ്കിലും പണിക്ക് വിടുന്ന പണിക്ക് വിടുന്നവരായിരിക്കും കൂടുതലും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ മടി കൊണ്ട് വരാത്ത കുട്ടികളും ഉണ്ടാകും അങ്ങനെയുള്ള കുട്ടികളൊക്കെ ടീച്ചർമ്മാരൊക്കെ അവിടെ വീട്ടിൽ പോയിട്ടൊക്കെ പിന്നെ ഒരുപാട് കുട്ടികളുടെ വീട്ടിലൊക്കെ പോയിട്ട് കുട്ടികളെ സ്കൂളിൽ കൊണ്ടു ചേർക്കാറുണ്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേരൊക്കെ കഷ്ടപ്പാട് കൊണ്ടായിരിക്കും ചിലരൊക്കെ മടി കൊണ്ടായിരിക്കും അങ്ങനത്തെ അവസ്ഥയൊക്കെ പക്ഷേ ഇപ്പം ഒക്കെ അതൊക്കെ കുറേ മാറി ഇപ്പം എല്ലാവരും ഏകദേശം കുട്ടികൾ എല്ലാവരും പഠിക്കാനൊക്കെ പോകുന്നുണ്ട്